ഞാൻ ശേഖരിക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ സ്കൂളുകളിലൊക്കെ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സ്റ്റാമ്പ് നമ്മൾക്ക് ഇടക്കിടയ്ക്ക് ഓരോരുത്തർ കൊണ്ടുത്തരുമായിരുന്നു നമ്മളെ ഓരോ ടീച്ചർമാർ കൊണ്ടുത്തരും ഈ സ്റ്റാമ്പ് നിങ്ങൾ വാങ്ങണം രണ്ടു രൂപയാണ് മൂന്നു രൂപയാണ് അഞ്ചു രൂപയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റാമ്പുകൾ ഇഷ്ടംപോലെ സ്റ്റാമ്പുകൾ കൊണ്ടുത്തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ആഗസ്ത് പതിനഞ്ചിനു ഞാൻ ഒരു സ്റ്റാമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ സ്റ്റാമ്പാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നത് ആദ്യത്തെ ഒരു സ്റ്റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിൽ നിന്നാണ് ഞാൻ എൻ്റെ ഒരു തുടക്കം കുറിച്ചത് പിന്നെ നാണയം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും പണ്ട് കുറേ ഇരുപതു പൈസ അണ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആരോ എന്താ പറയുക ഒരു ഇരുപത് പൈസ എൻ്റെ കയ്യിൽ കൊണ്ടുത്തന്നിട്ടു പറഞ്ഞു ഇതാണ് ഇരുപത് പൈസയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു എടാ എനിക്കിത് തരുമോ ഞാൻ ഇത് ശേഖരിച്ചു വച്ചോട്ടേയെന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ അത് എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്തുനിന്ന് ഞാൻ അത് മേടിച്ച് അതാണ് അത് നാണമായിട്ട് അതാണ് ഞാൻ ആദ്യമായിട്ട് ശേഖരിച്ചത് അപ്പോൾ അത് അതും ഈ സ്റ്റാമ്പുമാണ് ഞാൻ ഫസ്റ്റ് ശേഖരിച്ചത് അത് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ട് ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റത്തെ സ്റ്റാമ്പ് ശേഖരണവും നാണയവും